പ്രധാനമായും വിൽക്കുന്നത് അഡ്വർടൈസ് വഴി അഡ്വർടൈസ്മെന്റ് വഴിയാണ് ആ പരസ്യങ്ങൾ കൊടുത്താൽ സാധാരാണക്കാരിലേക്ക് വഴി വരെ എത്തിക്കുന്ന രീതിയിൽ ഉള്ളൊരു പരസ്യങ്ങളാണ് കൊടുക്കാറ് ഈ പരസ്യങ്ങൾ കൊടുക്കുന്നതിലൂ കൊടുക്കുന്നതിലൂടെ അവർ നല്ല രീതിയിൽ ഇത് വാങ്ങുകയും അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ ചിലവാകുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ പല ഭാഗങ്ങളിലും അവർ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് നമ്മളുടെ ഇത് വിളകൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഗുണമേന്മ ആയതുകൊണ്ട് ഗുണമേന്മ ഉള്ളത് കൊണ്ടുതന്നെ പല കാലങ്ങളോളം ഇത് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്